ഒന്നാമതായിട്ട് മൾട്ടി ടൂൾ അഥവാ ബൈക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചീന

അടുത്ത ഒന്നാണ് ചർച്ച് ചെയിൻ ലിങ്ക് അഥവാ ചെയിൻ തകർന്നാൽ അതിനെ വീണ്ടും കണക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ചർച്ച് ലിങ്കിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് അതിന് മറ്റു പേരായിട്ട് ഏത് ചെയിൻ ടൂൾ എന്ന് പറയുന്ന ഒരു പേര് കൂടി അതിനുണ്ട് മറ്റൊന്ന് എന്താണ് ഹെൽമറ്റ് ഗ്ലൌസ് സേഫ്റ്റി ജാക്കറ്റാണ് അഥവാ നിരന്തര സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട സുരക്ഷ ഉപകരണങ്ങളാണ് ഇവ

മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈക്ക് യാത്രക്കിടയിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന സാധാരണ മെക്കാനിക്കൽ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവുമാണ് ഈ ഒരു ടയർ പഞ്ചർ ഉണ്ടാവുകയാണെങ്കിൽ ടയറിൻ്റെ കാറ്റ് കളഞ്ഞ് ഒരു തരം താഴ്ന്ന ശബ്ദമുണ്ടാകും